ഞാൻ നിങ്ങളുടെ ഏജൻസിയിൽനിന്ന് ഒരു വണ്ടി ബുക്ക് ചെയ്തിരുന്നു എന്താ ഡൈവറിവിടെ എത്തിയപ്പോൾ പറയുന്നത് എനിക്ക് എന്താ ഞാൻ കൊടുത്ത പൈസയൊന്നും കൂടുതൽ പൈസ വേണമെന്നാണ് പറയുന്നത് എൻ്റെ ഭർത്താവ് അത്യാവശ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ എന്താ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് അവിടെ വരെ പോയി വരണം എന്നുണ്ട് എന്താ നിങ്ങൾ പറഞ്ഞിട്ട് ഇവരോടൊന്ന് പറയണം എന്താ എനിക്ക് ഈ പൈസ ഒന്ന് കുറച്ച് തരാൻ എന്താ എനിക്ക് അത്രയും എമർജൻസി ആയിട്ടാണ് ഞാൻ കോഴിക്കോട് പോവണമെന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ് ഇത് ഇതൊന്ന് കുറച്ച് തന്നാൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു എൻ്റെ കയ്യിൽ അത്ര പൈസ ഒന്നും ഇരിപ്പില്ല എനിക്ക് ഇനി ഹോസ്പിറ്റൽ പോയിക്കഴിഞ്ഞാൽ അവിടെ വേണം പൈസ അടക്കാൻ അപ്പോൾ നിങ്ങൾ ഈ ഡ്രൈവറിനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്തന്നാൽ വലിയ ഉപകാരമായിരുന്നു എന്താ പറയുക ഞാൻ ഒറ്റയ്ക്കാണ് പോണത് എനിക്ക് വീട്ടിൽ ആരും ഇല്ല ഇപ്പം ഈ നിങ്ങൾ ഈ ബുക്ക് ചെയ്തുതന്ന വണ്ടിയിൽത്തെ ഡൈവറോട് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം എൻ്റെയടുത്ത് ആകെ കുറച്ച് പൈസയുള്ളൂ ഇതുവച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞയക്കണം